ഹലോ ആ

ഇത് ന്യൂസ്പേപ്പർ ഏജൻസി അംഗമല്ലേ ഒരു ന്യൂസ്പേപ്പർ വാങ്ങുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഏത് സ്ഥലമാണ് കട്ടപ്പന ഇത് സ്ഥലം കട്ടപ്പന ഏറ്റവും കൂടുതല് ഇന്ന് പിന്നെ ഒത്തിരി പേര് മേടിക്കുന്ന ന്യൂസ്പേപ്പറേതാണ് വാർത്തകളൊക്കെ പെട്ടെന്ന് നല്ല രീതിയില് അവതരിപ്പിക്കപ്പെടുന്ന ന്യൂസ്പേപ്പര് കൂടുതൽ ആൾക്കാരും തെരെഞ്ഞെടുക്കുന്നത് ഇപ്പം നിലവില് ഏതാണെന്നറിയാമോ അങ്ങനെ ആ

അപ്പോള് അതിൻ്റെ മിനിമം ചാർജെത്രയാണ് ആറ് രൂപയോ എന്നാല് മനോരമ പേപ്പര് നമുക്ക് എടുക്കാമെന്ന് ഇപ്പോള് വിചാരിക്കുന്നു എത്ര രൂപയാണ് ആയിരം രൂപ ആ

അപ്പോള് ഇത് എന്ത് ഗൂഗിൾ പേ ചെയ്യണമോ എങ്ങനെയാണ് ഏത് സ്ഥലമാണ് കട്ടപ്പനയില് വന്നിട്ട് കോളേജ് ജംഗ്ഷൻ പറയണം കോളേജ് ജംഗ്ഷൻ

വീട്ട് പേര് മടിപ്പറമ്പില്

ആ കേള്ക്കുന്നുണ്ട് പറയട്ടെ ആ എഴുതിക്കോ മടിപ്പറമ്പിൽ ഹൗസ് കോളേജ് ജംഗ്ഷൻ കട്ടപ്പന പി ഓ കട്ടപ്പന ആ പറയാം തൊണ്ണൂറ്റിയാറ് അമ്പത്തിയാറ് എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് പന്ത്രണ്ട് നാല്പ്പത് ആ

അടുത്ത ദിവസം തൊട്ടുതന്നെ തരികയാണെങ്കില് ഉപകാരമായിരുന്നു ആ വിളിച്ചുകൊള്ളൂ ആ ഓക്കേ ഓക്കേ താങ്ക് യു